മികച്ച സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തെ വളരെയധികം സഹായിക്കാറുണ്ട് ചെറിയൊരു വസ്ത്ര വ്യാപാര മേഖലയിലൂടെ കൈപിടിച്ച് ഉയർന്നുവന്ന ഒരു വ്യക്തിയെന്ന നിലയില് സാങ്കേതിവിദ്യ വളരെയധികം സഹായിച്ചിട്ടുണ്ട് സാങ്കേതികവിദ്യയിലൂടെ സാങ്കേതികവിദ്യ വളരെയധികം പ്രയോജനപ്പെടുന്ന മേഖലയിലൂടെ നമുക്ക് പോകുവാനും അതിനൊക്കെ ആ മേഖല സാമ്പത്തികപരമായായാലും സാമൂഹ്യപരമായാലും ഉയർത്തുവാനൊക്കെ സാധിച്ചത് സാങ്കേതികവിദ്യയിലൂടെയാണ് ധാരാളം കാര്യങ്ങള് തുണി വ്യവസായത്തെ സംബന്ധിച്ചായാലും തുണികള്ടെ വെറൈറ്റീസ് അവയുടെ ഉപയോഗത്തെക്കുറിച്ചായാലും അവ ഏതുതരത്തിലുള്ള നിലവാരത്തിലുള്ളവയാണെന്നതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നമുക്ക് സ്മാർട്ട് ഫോണുകളൂടെയൊക്കെ അത് നമുക്ക് നോക്കി അത് കണ്ടുപിടിച്ച് നല്ല നിലവാരത്തിലുള്ള തുണികള് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിനെ സഹായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങള് നല്ലതായ കാര്യങ്ങൾ തെരഞ്ഞെടുക്കാൻ സാങ്കേതികവിദ്യ വളരെയധികം ഉപയോഗിക്ക ഉപയോഗപ്രദമാണ് സാങ്കേതിക ബില്ലുകള് ബില്ലുകള് പേ ചെയ്യുന്നതിനും ക്യാഷുകള് വിഡ്രോ ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് സാങ്കേതികവിദ്യ വളരെയധികം സഹായപ്രദ സഹായമാണ് ബാങ്കുകളിൽ പോയി ക്യൂ നിൽക്കാതെ നമുക്ക് എ ടി എമ്മിൽ നിന്നൊക്കെ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടിപ്പോയി നമുക്ക് പണം പിൻ വലിക്കുന്നതിനും ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനും ഒക്കെ സാങ്കേതികവിദ്യയുടെ വളർച്ച തന്നെയാണ് നമ്മളെ ഇതിന് സഹായിക്കുന്നത് ഒരു ബിസിനസ് എന്ന ഒരു ബിസിനസിന് ഉയർത്തിക്കൊണ്ടു വരുവാൻ സാങ്കേതികവിദ്യയ്ക്ക് വളരെയധികം പങ്കുണ്ട് ബിസിനസില് നമ്മള് ഏത് പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റാണോ കൂടുതലായിട്ട് നമ്മള് തെരഞ്ഞെടുക്കുന്നത് അത് നമുക്ക് ഇപ്പം ഒരു സാങ്കേതികവിദ്യയുടെ ഒരുവശമാണ് സ്മാർട്ട് ഫോണുകള് അതില് നമുക്ക് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോക്കെ നമ്മുടെ ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ചെറിയ ലഘു പ്രസംഗങ്ങളിലൂടെ നമുക്ക് മറ്റുള്ള ആളുകളെ ആകർഷിക്കുന്നതിനൊക്കെ നമുക്ക് സാധിക്കുന്നത് സാങ്കേതികവിദ്യയിലൂടെയാണ് നമ്മുടെ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അതെന്താണെന്നും എങ്ങനെയാണെന്നും എന്തുമാത്രം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയിക്കാനായിട്ട് നമുക്ക് സമൂഹത്തെ അറിയിക്കാനും അല്ലെങ്കില് നമുക്ക് വിറ്റഴിക്കാനുമൊക്കെ സാധിക്കുന്നത് സാങ്കേതിക

ആ ലാഭം ഈ നഷ്ടം നമുക്കെങ്ങനെ നികത്താം ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സാങ്കേതികവിദ്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാങ്കേതിക വിദ്യയുടെ ഫലമായി തന്നെയാണ് ജീവൻ മനുഷ്യജീവനിത്രത്തോളം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ബിസിനസെന്ന നിലയില് അതിനെ വളരെ വിജയത്തിലെത്തിക്കുവാനായിട്ട് സാങ്കേതികവിദ്യകള് വളരെ പ്രയോജനപ്പെടുന്നുണ്ട് സ്മാർട്ട് ഫോണുകളായാലും മറ്റുള്ള കമ്പ്യൂട്ടർ ലാപ്ടോപ്പുകള് അങ്ങനെ പല മേഖലയിലുള്ള വികസനത്തിന് പല മേഖലകളുപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് സാങ്കേതികവിദ്യ നമുക്ക് കാണിച്ചു തരും സാങ്കേതികവിദ്യയിലൂടെ ജീവിതത്തിലെ നിലവാരം വളരെയധികം ഉയർത്തുവാനും മെച്ചപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുന്നവ തന്നെയാണ്